ഹലോ ആ കെ എസ് ഇ ബി അല്ലേ ആ ആ ആ മോഹനന് സാറോ ആ ആ പരിചയമുണ്ട് സാറേ പിന്നെ നമുക്കേ എന്റെ ആ പുതിയ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് സോളാർ വയ്ക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അതായത് ഇപ്പോഴത്തെ കറണ്ട് ചാര്ജ് ഒക്കെ വെച്ച് നോക്കുമ്പം അതല്ലേ നല്ലത് അതിൽ തന്നെ മൂവായിരത്തിൽ കൂടുതൽ ഉള്ളതിന് പിന്നെ സോളാർ വയ്ക്കണമെന്ന് പഞ്ചായത്തിലെങ്ങാണ്ട് നിയമം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടു ഞാന് സാറിൻറെ അടുത്ത് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല അതിന്റെ പെര്മിറ്റിന് കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ പിന്നെ അപ്പോൾ സാറേ അതെങ്ങനെയാണ് അങ്ങനെ എത്ര ടണ് വയ്ക്കണം എന്നുണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ ആ അതേ അതിന് സബ്സിഡി ഏതാണ്ട് കേന്ദ്ര ഗവണ്മെന്റിന്റെ ഉണ്ടെന്നിങ്ങനെ പറയുന്നത് കേട്ടു ആ ആ ആ എഴുപത്തിര എഴുപത്തയ്യായിരമോ അങ്ങനെ എങ്ങാണ്ട് ഉണ്ടെന്ന് കേട്ടു ആ ആ ആ ഹാ അതിന് പ്രത്യേക ഫോം വല്ലതും ഉണ്ടോ സാറേ അ ഇല്ല ആ ആ അപ്പോൾ അതേ ഞാൻ അങ്ങോട്ട് വരട്ടേ വന്നാൽ നമുക്ക് അതൊന്ന് സാർ ഒന്ന് എപ്പോഴത്തേന് കാണും അവിടെ ആ വ്യാഴാഴ്ചയോ ആ വരാം വരാം വരാം വരാം അപ്പോൾ ഉച്ച കഴിഞ്ഞ് ആയിക്കോട്ടെ ഏ ശരി എന്നാൽ